ഇവിടെ ഓണക്കാലമൊക്കെ ആണെങ്കിൽ ആ സമയത്ത് കുറേ പിള്ളാരൊക്കെ വിളിച്ച് കൂട്ടി ഓണക്കളികൾ കളിക്കും അപ്പം ഓണക്കളികൾ എന്ന് വെച്ചാൽ ഓണക്കാലത്താണ് ഈ സംഭവം കളിക്കുന്നത് അപ്പം ഇതിൻ്റെ കുറേ കളികളുണ്ട് ബിസ്കറ്റ് കളിയുണ്ട് ഓട്ടമത്സരം പിന്നെ കസേര ചുറ്റൽ അതുപോലെത്തന്നെ പിന്നെ കവുങ്ങ് കയറ്റം പിന്നെ വള്ളിയിൽ തൂങ്ങി ഇങ്ങനെ പോവുന്നത് അങ്ങനെ പലതരം കളികൾ ഇതിലുൾപ്പെടുന്നു പിന്നെ കുടം അടിയുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് സംഭവം ഇങ്ങനെ ഇവർ തുടങ്ങുന്നത് എന്ന് വെച്ചാൽ തിരുവോണത്തിൻ്റെ അന്നാണ് ഇവർ തുടങ്ങുന്നത് തിരുവോണത്തിൻ്റെ അന്ന് ഒരു ഉച്ച മണി ഉച്ചയൊക്കെ ആവുമ്പഴ്ത്തേക്കും ഇവർ പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് പോവുകയും ഇവർ ആദ്യം കൊച്ച് പിള്ളേർ തൊട്ട് പിന്നെ അങ്ങോട്ട് വലിയ പിള്ളേർക്ക് വരെ ഉള്ള എല്ലാത്തരം കളികളും ഉണ്ട് അങ്ങനെ ഇതേ ഓരോ കളികളിൽ കളിക്കുന്നു പിന്നെ ഷോട്ട് പുട്ടൊക്കെ ഉണ്ട് പിന്നെ ജാവലിംഗ് ത്രോ എല്ലാം ഉണ്ട് അങ്ങനെ ഇതെല്ലാം കളിക്കും പിന്നെ മരപ്പന്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കളിക്കും അതെല്ലാം കളിക്കാം അപ്പം കൊച്ച് പിള്ളേർ തൊട്ട് വലിയ പിള്ളേർ വരെയുള്ള എല്ലാരും ഒക്കെയുള്ള കളിക്കാൻ പറ്റുന്ന എല്ലാത്തരം കളികളും ഇവർ കളിക്കും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഉളളത് ചില ചില സമയങ്ങളിൽ ഇവിടെ നമ്മുടെ വീട്ടിലെ അടുത്തുള്ള എല്ലാ ചേർത്ത് ടൂർണമെൻറ്റ് നടത്തും പിന്നെ ഫുട്ബോള് ഫുട്ബോൾ ടൂർണമെൻറ്റും ക്രിക്കറ്റ് ടൂർണമെൻറ്റൊക്കെ കളിക്കും പിന്നെ ഇനി നാട്ടിലുള്ള ആൾക്കാർ എല്ലാവരും ചേർന്ന് ചില സമയങ്ങളിൽ കായികോത്സവം പോലെ ഇങ്ങനെ നടത്തും അതിന് ഇതേപോലെ ഓട്ടമത്സരം ചാട്ടം പിന്നെ ജാവലിംഗ് ത്രോ എല്ലാം ഉണ്ട് അതിന് ക്യാഷ് പ്രൈസ് കിട്ടും ജയിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസും പിന്നെ ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ അഭിനന്ദനങ്ങൾ പറയും പിന്നെ അവർക്ക് ട്രോഫി കൊടുക്കും പിന്നെ ഫസ്റ്റ് കിട്ടുന്നവർക്ക് ക്യാഷ് പ്രൈസും ബാക്കിയുള്ളവർക്ക് ഇതേപോലെ ട്രോഫിയും കൊടുക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ വലുതായിട്ട് ഒന്നും ഇല്ല ഇതൊക്കെ തന്നെ